ചേട്ടാ നമസ്കാരം ഞാൻ വിളിച്ചത് ഞാൻ ഇന്നലെ നിങ്ങളുടെ കമ്പനിയിൽനിന്ന് ഒരു കാബ് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഞാൻ ഇന്നലെ ഇവിടുന്ന് പാലക്കാടുനിന്ന് ചെന്നൈക്ക് പോകാൻ വേണ്ടീട്ടാണ് കാബ് ബുക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് ചെന്നൈയിൽ വലിയ എന്താ പറയുക അറിവും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ പുതിയതായിട്ട് പോയതാണ് അപ്പോൾ ആ ചേട്ടൻ കറക്റ്റ് ആയിട്ട് എന്നെ സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തു കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് അവിടെ എത്തി നേരെ ജോലീൻ്റെ സ്ഥലത്തേക്ക് ആണ് പോയത് ഓഫീസിലേക്ക് അവിടെ കറക്റ്റ് ടൈമിൽ എത്തി കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ എന്നെ കൃത്യമായിട്ട് ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടിട്ടാണ് പോയത് എന്തായാലും നല്ല സർവീസ് ആയിരുന്നു ഡ്രൈവറെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം ആണ് നല്ല റേറ്റിംഗ് തരുന്നുണ്ട്